ഞങ്ങളുടെ പ്രദേശത്തു ലഭ്യമായ പത്രങ്ങൾ എന്നുപറഞ്ഞുകഴിഞ്ഞാൽ ഞാനിപ്പം തൃശ്ശൂർ ടൗണിൽ ജീവിക്കുന്നതു കാരണം എൻ്റെ ഈ ഒരു ലൊക്കാലിറ്റിയിൽ ഒരുതരം എല്ലാ ന്യൂസ് പേപ്പർസും അവൈലബിൾ ആണ് ഇപ്പം നമ്മൾ തത്ക്കാലം വീട്ടിലേക്കു വരുത്തുന്നത് മാതൃഭൂമി മാത്രമാണ് പക്ഷെ ഒരു കാലത്ത് മനോരമ അങ്ങനത്തെ ന്യൂസ് പേപ്പറുകളൊക്കെ മൾട്ടിപ്പിൾ ന്യൂസ് പേപ്പള്കൾ ന്യൂസ് പേപ്പറുകൾ വരുത്തുമായിരുന്നു ഇപ്പം അത് ജസ്റ്റ് അധികം ന്യൂസ് പേപ്പറുകൾ ഇൻക്ലൈൻഡ് അല്ലാത്ത കാരണം ഇപ്പോഴത്തെ ടെലിവിഷൻ ഒക്കെയുള്ള കാരണം ഓൺലൈൻ ന്യൂസൊക്കെ ഉള്ളത് കാരണം ജസ്റ്റ് ഒരു ന്യൂസ് പേപ്പർ മാത്രമേ വരുത്താറുള്ളു അതല്ലാണ്ട് ഇപ്പോൾ ഈ ഭാഗത്ത് ഉള്ളത് കൂടുതലും മാതൃഭൂമി മനോരമ പിന്നെ ദേശാഭിമാനി ഉണ്ട് മംഗളം ലൈക് അങ്ങനത്തെ കുറച്ച് ഓഫീസുകൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുണ്ട് അതുകൊണ്ട് ആ ന്യൂസ് പേപ്പർസൊക്കെ ആണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് പിന്നെ മലയാളം അല്ലാണ്ട് ഇംഗ്ലീഷ് പറയാണെങ്കിൽ ദി ഹിന്ദു എന്നുപറഞ്ഞിട്ടൊരു ന്യൂസ് പേപ്പർ ഉണ്ട് പിന്നെ അതിൻ്റെ ടൈംസ് ഓഫ് ഇന്ത്യ ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറുകൾ നമ്മളൊരു കാലത്ത് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറും വരുത്തുമായിരുന്നു അത് കൂടുതൽ നമ്മൾ ടെൻത് നൈൻത് എയ്ട്ത്ത് ആ ഒരു ടൈമിലായിരുന്നു കാരണം ആ ടൈമിൽ ഞാൻ പറഞ്ഞതു പോലെ നമുക്ക് ന്യൂസ് അസംബ്ലിയിൽ വായിക്കലും ഇതേപോലെ ന്യൂസ് ഹിസ്റ്ററിയും ജോഗ്രഫിയും നന്നായിട്ട് ക്ലാസ്സിൽ പോയി പറയാൻ നമ്മളോട് എല്ലാ ദിവസവും ഒരഞ്ച് ന്യൂസ് എഴുതികൊണ്ടു വരാൻ നമ്മളോട് സോഷ്യൽ സയൻസ് ടീച്ചർ പറയുമായിരുന്നു അപ്പം ഈ ഒരു ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വരുത്താറുണ്ടായിരുന്നത് ഈ ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അതിന്നുള്ളൊരു പുതിയ പുതിയ വേർഡ് ടേമ്സും നോളേജും ആ ഒരു കാര്യത്തിലുള്ള നോളേജും കാര്യങ്ങളും നന്നായിട്ട് ഇമ്പ്രൂവ്ഡ് ആയിട്ട് ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ളതായിട്ട് അറിയാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ന്യൂസ് പേപ്പറിനെ പറ്റി പറയാണെങ്കിൽ അത്രയാണ് ഉള്ളത് പിന്നെ അതല്ലാണ്ട് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ള കോളംസ് ഏതൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഫസ്റ്റ് പേജും ലാസ്റ്റ് പേജും കാരണം ഫസ്റ്റ് പേജിൽ മലയാളം ന്യൂസ് പേപ്പർസ് ആണെങ്കിൽ ഫസ്റ്റ് പേജിൽ മെയിനായിട്ടുള്ള ഹെഡിങ്സ് എല്ലാം കാണാൻ അറ്റ് എ ഗ്ലാൻസ് എല്ലാ ന്യൂസും ഞങ്ങൾക്കു ഗ്രാസ്പ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് പേജിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മലയാളം ന്യൂസ് പേപ്പർസിൽ എനിക്ക് ലാസ്റ്റ് പേജിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇൻറ്റർനാഷണൽസ് കുറച്ചു കൂടുതൽ ബാക്ക് പേജസ്സിലാകും അതുകൊണ്ടു തന്നെ ബാക്ക് പേജ് വായിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ ഒഫ് കോഴ്സ് ഞാനൊരു ബോയ്സ് ബോയ് ആണ് അപ്പം ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടായിരുന്നൊരു പേജെന്നു പറഞ്ഞാൽ ആദ്യ പേപ്പർ വന്നുകഴിഞ്ഞാൽ ആദ്യം ഹെഡിങ്സ് മെയിൻ ഹെഡിങ്സ് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ പോണത് എന്തായാലും സ്പോർട്സ് പേജിലേക്കാണ് സ്പോർട്സ് പേജാണ് ഏറ്റവും കൂടുതൽ സമയം കളയാറ് അന്നൊക്കെ ടി വി കാണുമായിരുന്നെങ്കിലും സ്പോർട് അതെ കണ്ട സാധനം തന്നെ വീണ്ടും സ്പോർട്സ് പേജിൽ പോയി വായിക്കാൻ അവരെ ആ ഒരു ഡീറ്റൈൽ എങ്ങനെ ആ ഒരു അവരെ ലാഗ്വേജിൽ അത്ര ക്ലാസ്സോടെ എഴുതുന്നു ആ ഒരു കാര്യം വീണ്ടും പോയി ന്യൂസ് പേപ്പറിൽ വായിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അതു കാരണം ഏറ്റവും കൂടുതൽ അതിൽ ഞാൻ നോക്കികൊണ്ടിരുന്ന കോളം എന്നുപറഞ്ഞാൽ ഒഫ് കോഴ്സ് ആ സ്പോർട്സ് പേജ് ആയിരുന്നു അതിനകത്ത് ഓരോ സ്പോർട്സിനെ പറ്റിയിട്ടു വായിക്കാനും അങ്ങനത്തെ കാര്യങ്ങളും ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ആയിരുന്നെങ്കിൽ മൊത്തം ഇരുന്നു വായിക്കുകയായിരുന്നു എൻ്റെ വീട്ടിൽ സ്ട്രിക്റ്റ് ആയിരുന്നു ന്യൂസ് പേപ്പർ മൊത്തം ഇരുന്നു വായിച്ചു പുതിയ പുതിയ കിട്ടുന്ന വേർഡ്സ് ഒരു നോട്ട് ബുക്കിലേക്ക് ആക്കി ആ പുതിയ വേർഡ്സ് പഠിക്കാൻ അങ്ങനത്തൊരു കാര്യം കൂടി വീട്ടിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇംഗ്ലീഷ് പേപ്പർ ആയിരുന്നെങ്കിൽ മൊത്തം ഇരുന്നു വായിക്കുകയായിരുന്നു മൊത്തം ഇരുന്ന് വായിക്കാനും ഇഷ്ടമായിരുന്നു അതേപോലെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഓരോ മന്ത് ഓരോ ഡെയ്സിന് ഫൈവ് റുപ്പീസ് വെച്ചു കൊടുത്ത് ന്യൂസ് പേപ്പർ വരുത്തിക്കുന്ന ഒരു സ്കീം പോലെ ഉണ്ടായിരുന്നു ഓരോ സ്റ്റുഡൻറ്റ്സിനും ഫൈവ് റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ഇംഗ്ലീഷ് പേപ്പർ കിട്ടും നമ്മുടെ ഒക്ക്യാബുലറി കാര്യങ്ങളും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ അങ്ങനെയും കൂടി ന്യൂസ് പേപ്പർ വരുത്തി വായിക്കുമായിരുന്നു അപ്പം ന്യൂസ് പേപ്പറിനെ പറ്റി പറയുമ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും അധികം മനസ്സിലേക്കു വരുന്നത്